ഹലോ ആ ഇത് റൈസ് ഡീലർ കമ്പനിയല്ലേ ആ ഞാൻ വിളിച്ചത് എനിക്ക് കുറച്ച് അരി വേണ്ടിയിരുന്നു അപ്പോള് നിങ്ങളുടെ അവിടെ ഗോഡൗണിൽ ഏതൊക്കെ അരികളാണ് ലഭ്യമായതെന്ന് പറയുമോ ആ അതെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വീട്ടില് അപ്പോള് അരികള് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാല് എനിക്കത് ഇഷ്ടമുള്ളത് മേടിക്കാനായിരുന്നു ഏതൊക്കെ തരം അരികളുണ്ട്

അതെ എനിക്ക് എല്ലാ അരിക്കും ഒരേ റേറ്റ് തന്നെയാണോ അതോ പല റേറ്റിലാണോ അരികള് ആ അതെയല്ലേ ഏറ്റവും നല്ലയരി ആ അതെയല്ലേ എങ്ങനെയാണ് നിങ്ങള് അരിക്ക് റേറ്റിടുന്നത് ഓരോ ചാക്ക് അനുസരിച്ചിട്ടാണോ അതോ നമ്മള് സാധാരണ കടയില് നിന്ന് മേടിക്കുന്നതു മാതിരിയാണോ എനിക്ക് ചാക്കായിട്ടാണ് ഫങ്ഷന് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോളോരോ ചാക്കായിട്ട് മതി അങ്ങനെ മതി എങ്ങനെയാണ് ഡെലിവറി ആയിരുന്നു ഒന്നുകൂടി ഞങ്ങള്ക്ക് സുഖകരം ഞങ്ങള്ക്ക് ഫങ്ഷന് നാളെയാണ് അപ്പോള് പെട്ടെന്ന് എത്തുകയാണെങ്കിൽ അതായിരുന്നു ഏറ്റവും ആ ഓക്കെ പിന്നെ മറ്റേ ബിരിയാണിയരി അത് അങ്ങനത്തെ അരികളുണ്ടോ മന്തി റൈസ് അങ്ങനത്തെയൊക്കെ

അതെയല്ലേ അപ്പോള് അതിനും പല റേറ്റുകളാണല്ലേ നിങ്ങള് പാലക്കാട് ആ എൻ്റെ ലൊക്കേഷന് ഞാന് പറഞ്ഞുതരാം പെരിന്തല്മണ്ണയ്ക്കടുത്താണ് എൻ്റെ ലൊക്കേഷന് അപ്പം അപ്പം ആ അതെയല്ലേ അപ്പോള് നിങ്ങള് നാളെയാണ് ഫങ്ഷൻ അപ്പോള് എത്രയും പെട്ടെന്ന് എത്തിച്ചാല് അത്രയും നന്നായിരുന്നു ഇത് ആ അതെ ഞാന് ലിസ്റ്റ് മെസ്സേജായിട്ട് അയക്കാം എന്നാല് ഓക്കെ ആ അതെ ആ എന്നാല് നമുക്ക് നാളെ നിങ്ങള് വരുമ്പോള് നേരിട്ട് സംസാരിക്കാം ഓക്കെ ആ എന്നാല് താങ്ക് യൂ